ഹലോ ഇത് ലേഡീസ് ടെയ്ലറിംഗല്ലേ ഞാൻ ലക്ഷ്മിയാണ് എനിക്കിപ്പൊരു ഫംഗ്ഷനൊരു ഡ്രസ്സ് അത്യാവശ്യമായി തയ്ച്ച് കിട്ടാനുണ്ടായിരുന്നു ചുരിദാറായിരുന്നു രണ്ട് ഡ്രസ്സുണ്ട് ആ എനിക്കിത് രണ്ട് ദിവസത്തിനുള്ളിലെങ്കിലും കിട്ടണം ഇത് അർജൻറ്റായിട്ട് കിട്ടണ്ടെയുണ്ടായിരുന്നു ഒരു ഡ്രസ്സെങ്കിലും കിട്ടിയിരുന്നെങ്കീൽ അത് കൊള്ളാമായിരുന്നു കാരണം ഭയങ്കരം അർജൻറ്റായിട്ട് പെട്ടെന്നായിരുന്നു ഇങ്ങനൊരിത് വന്നത് ആ അങ്ങനെ നോക്ക് ആ ഞാനിത് ഉടനെ തന്നെ കൊണ്ട് വരാം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ കടയിൽ കൊണ്ടന്നെത്തിക്കാം ആ ആ ഓക്കെ ഓക്കെ പിന്നെ ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ വരുക ആ ഓക്കെ എനിക്ക് രണ്ട് ഡ്രസ്സും രണ്ട് ഡിസൈനിലായിരുന്നു വേണ്ടീരുന്നത്

ഒരെണ്ണം അംബ്രല്ല കട്ടിംഗൊക്കെ വെച്ചിട്ട് നോക്കാനായിരുന്നു ഒരെണ്ണം സിമ്പിളായിട്ടെന്നുള്ളതും ആ ആ ഓക്കെ ഓക്കെ പിന്നെ നിങ്ങളുടെ കട എപ്പോൾ വരെയാണ് തുറന്നിരിക്കുക ഓപ്പണായിരിക്കുക

ആ ആ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എന്തേലും നിങ്ങളൊന്ന് പെട്ടെന്ന് തയ്ച്ച് തരാൻ നോക്കൂ ഇപ്പോൾ ആ ഓക്കെ താങ്ക് യൂ